ഞങ്ങളെ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും ചേരുന്നതും ആയിട്ടുള്ളൊരു കാര്യം ക്ലാസ്സിക്കൽ ഡാൻസാണ് കാരണം കുട്ടികൾക്ക് കളിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്ലാസ്സിക്കലിനോടാണ് അപ്പോൾ കുട്ടികൾ കൂടുതലിവിടെ പഠിക്കുന്നത് ക്ലാസ്സിക്കൽ ഡാൻസാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നമ്മളെ ഈ ഈ കൊച്ചു ഗ്രാമത്തിൽ തന്നെ അതിനൊരു സംവിധാനം ഒരു സ്ഥലം കുട്ടികൾക്ക് വന്നു പഠിക്കാനുള്ളൊരു സംവിധാനം നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് എല്ലാ ആഴ്ച്ചകളിലും ഒരു മാഷ് വന്ന് നമ്മളെ ഈ ചുറ്റുവട്ടത്തിലുള്ള കുട്ടികളെയൊക്കെ ആ ഒരു സ്ഥലത്തെത്തിച്ച് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നീട് നമ്മൾ നമ്മളെ തൊട്ടടുത്തു തന്നെ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ പൊങ്കാല മഹോത്സവം നടക്കുന്നുണ്ട് താലപ്പൊലി മഹോത്സവം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതൊരു സ്റ്റേജ് പരിപാടിയായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു അവസരമായിട്ട് ആ കുട്ടികൾ അവിടെ ഒക്കെ കളിക്കലുണ്ട് അപ്പോൾ അത് ഒരുപാട് അമ്മമാരും കാഴ്ചക്കാരുമായിട്ട് നന്നായിട്ട് ഞങ്ങൾ ഓരോ വർഷം നല്ല ആസ്വദിച്ചു തന്നെയാണ് അത് കൊണ്ടാടുന്നത് പിന്നെ മറ്റുള്ളത് സിനിമാറ്റിക് ഡാൻസ് പിന്നെ നാടോടി നൃത്തം തിരുവാതിര അങ്ങനെ പല പരിപാടികളും നമ്മളെ അവിടെ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിലാണ് കുട്ടി സ്റ്റേജ് പരിപാടി പിന്നെ നടത്തുന്നത് ആ സമയങ്ങളിൽ ആൺ കുട്ടികളെന്നോ പെൺ കുട്ടികളെന്നോ ഭേദം ഇല്ലാതെ എല്ലാ തരത്തിലും എല്ലാ കുട്ടികളും ആ പങ്ക് പരിപാടിയിലൊക്കെ പങ്ക് ചേരലുണ്ട് പിന്നെ കൂടുതലായിട്ടും ക്ലാസ്സിക്കൽ നൃത്തമാണ് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ മാഷ് വന്ന് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചെടുത്ത് അത് കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം ഉണ്ടാവുന്നത് നമ്മളെ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലും നമ്മളെ വീടിനോട് ചേർന്ന ക്ഷേത്രങ്ങളിലും പിന്നെ തൊട്ടപ്പുറത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ കുട്ടികൾ പോയിട്ടത് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ ഒരു നൃത്തം എന്നു പറയുന്നത്